ആ അതെ പറഞ്ഞോളൂ മൂന്നാർക്ക് ആണോ എപ്പോഴാണ് പോവേണ്ടത് മൂന്ന് ആഴ്ചക്കുള്ളിൽ ആണോ മുപ്പതാം തീയതി ആണോ ആ ഓക്കെ ഓക്കെ എത്ര പേരുണ്ട് ആ അഞ്ച് ദിവസത്തേക്ക് അല്ലേ ആ ഓക്കെ ഓക്കെ നമ്മൾ അവിടെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണോ നിങ്ങൾക്ക് അവിടെ റൂം കാര്യങ്ങളൊക്കെ ഫുഡും വേണം എത്ര പേരുണ്ട് വണ്ടി ആ വണ്ടി പത്ത് പേർക്കുള്ളതെന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല ഏഴ് പേർക്കാണ് മാക്സിമം നമുക്ക് ഇന്നോവ വരുന്നത് പിന്ന ബാക്കി ട്രാവലർ ആണ് വരുന്നത് ട്രാവലർ പതിനാല് സീറ്റിൻ്റെ വരെയാണ് വരുന്നത് ട്രാവലർ മതിയോ ആ ട്രാവലർ ആവുമ്പം കുറച്ച് പൈസ കൂടുതൽ വരും ഇന്നോവ ഒക്കെ ആണെങ്കിൽ ചെറിയ റേറ്റിന് നമുക്ക് റെഡി ആക്കാമായിരുന്നു പക്ഷേ അപ്പം നമുക്ക് ഇന്നോവ പറ്റില്ല ആ ഇന്നോവ ആണെങ്കിൽ ഏഴ് പേർ മാക്സിമം നമുക്ക് സെറ്റ് ആക്കാമായിരുന്നു ആ ട്രാവലർ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇന്നോവയിൽ മൂന്നാർ വരെ അല്ലേ വേറെ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ ഉണ്ടോ മൂന്നാർ വരെ ഇരുപത്തി രണ്ട് രൂപേന്റെ അടുത്ത് വരും നമുക്ക് അഞ്ച് ദിവസം ഉണ്ടല്ലോ ഇരുപത്തിരണ്ട് ആ റേറ്റിനുള്ളിൽ നമുക്ക് റെഡി ആക്കാം ട്രാവലർ ആവുമ്പം മുപ്പത്തി അഞ്ച് ഒരു മുപ്പത്തി ചിലപ്പം എബോവ് കാര്യങ്ങളൊക്കെ വരും ഇപ്പം കുറേ നിങ്ങൾ കറങ്ങാൻ ഉള്ളപ്പം ആ അപ്പം അത് ഒരു മുപ്പത്തിയഞ്ച് ആ ഓക്കെ കുഴപ്പം ഇല്ല ഇല്ല ഇല്ല ഇല്ല നിങ്ങൾക്ക് റിസോർട്ട് ആണെങ്കിൽ റിസോർട്ട് ഏതാണ് വേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് റെഡി ആക്കാം നല്ല അടിപൊളി റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്നാർ അപ്പം എല്ലാം നമുക്ക് സെറ്റ് ആക്കിത്തരാം അപ്പം കുറച്ച് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വരും അവിടുത്തെ എമൗണ്ട് വേറെ ബിൽ പേ ചെയ്യണം ആ അപ്പം നിങ്ങൾ മുപ്പതാം തീയതി അല്ലേ വരുന്നത് മുപ്പതാം തീയതി ആ എത്ര മണിക്കാണ് പോവാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഓക്കെ ആ അങ്ങനെ ആണെങ്കിൽ ആ ഇവിടെ വന്ന് പിക്ക് ചെയ്യാം അങ്ങനെ ആണെങ്കിൽ മുപ്പതാം തീയതി ഞങ്ങൾ രാവിലെ വരാം മാനന്തവാടിയിൽ എവിടെ ഓ ലൊക്കേഷൻ ഒന്ന് എനിക്കൊന്ന് വാട്ട്സ്ആപ്പ് ചെയ്ത് തന്നാൽ മതി ഓക്കെ ഓക്കെ നേരത്തെ അഡ്വാൻസ് ഒരു ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമോ എന്ന് രണ്ടായിരം രണ്ടായിരമേ

ആ ഇത് തന്നെ ഇത് തന്നെ എത്തിച്ച് തന്നാൽ മതി